ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെയുണ്ട് അന്നേരം അത് കളിക്കുന്ന സ്പോർട്സ് പരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന എല്ലാ കുട്ട് വിദ്യാർത്ഥികളെയും അതായത് കുട്ടികൾ അപ്പോൾ നാട്ടിലെ കുട്ടികൾ അവരെല്ലാവരും അവിടെ പോയി കളിക്കുന്നതാണ് അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ നാട്ടുകാരും അ ആൾ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാവരും തന്നെ ഇതിന് ഇതിന് വളരെ സപ്പോർട്ടീവാണ് അപ്പം അവറ് അവർ പറയുന്നത് കുട്ടികൾ കളിക്കട്ടെ അപ്പോൾ അവർ കളിച്ച് വളരുക വളരട്ടെ അപ്പോൾ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് സ്റ്റേഡിയങ്ങൾ ഗ്രൗണ്ടുകൾ കാര്യങ്ങളെല്ലാമുണ്ട് അപ്പോൾ അവിടെ കളിക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ അവർ പറയുന്നത് കുട്ടികൾ കളിച്ചോട്ടെ അവർ അവർ അവരുടെ കുറച്ച് സമയം അവർ നല്ല കാര്യത്തിന് സ്പെൻഡ് ചെയ്യുന്ന അപ്പം അവർ കളിക്കുന്നതിലൂടെ അവരുടെ ബോഡിക്കും നല്ലതാണ് അപ്പം ഇവർക്ക് ഒരു പ്രശ്നവുമില്ല അപ്പം അവരുടെ കളികളും കാണുക അവരുടെ പിള്ളേരുടെ കായിക പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രിക്കറ്റ് കളി ഫുട് ബോൾ ഷട്ടിൽ അങ്ങനെല്ലാ ക കളികളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അപ്പം കുട്ടികൾ അവിടെ ഹാപ്പിയാണ് അതിൻ്റെ അടുത്തുള്ള ആൾക്കാരും അവരും ഹാപ്പിയാണ് അവർ അവരൊന്നും പറഞ്ഞില്ല അവരുടെ ഒച്ചയും ബഹളവും അത് കുട്ടികളുടെ ശബ്ദവും കാര്യങ്ങളും എല്ലാം കേൾക്കുന്ന ഒരാൾ ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാരും വളരെ ഹാപ്പിയാണ്